ജനങ്ങളുടെ ഗവൺമെന്റ് ഒരുപാട് ജനകീയ പ്രോഗ്രാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കാലത്താണ് നമ്മളിപ്പം ജീവിച്ചോണ്ടിരിയ്ക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനും ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും ഇപ്പോൾ ഗെവൺമെൻട് നല്ല സജ്ജീകരണം സംവിധാനങ്ങൾ നടത്തിക്കോണ്ടിരിയ്ക്കുകയാണ് ഏത് മേഖലയിലായാലും നമ്മൾക്ക് നമ്മടെ പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്തുന്നതിനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും ഗെവൺമൻട് മുൻ കൈ എടുത്ത് പ്രവർത്തിയ്ക്കയാണ് നമ്മുടെ രാ വിവിധ രാഷ്ട്രീയ കക്ഷികളായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒര് പാർട്ടി ചെയ്യിക്കാനും ഗെവൺമൻട് പ്രോഗ്രാം ചെയ്യിക്കാനും അതുപോലെ ജനങ്ങളെ ഇടപെടുത്തിക്കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരുപാട് നിരവധി പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടത്താൻ വേണ്ടി ഇപ്പം സന്നദ്ധമായിക്കൊണ്ടിരിയ്ക്കയാണ് അത് കേന്ദ്ര ലെവൽലായാലും കേരളാ ലെവൽലായാലും ഏതു പ്രയൊ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി നമുക്കൊരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വ്യത്യസ്ത രീതിയിൽ നമുക്ക് പറ്റുന്നുണ്ട് ഒര് ഓരോ മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലും പിന്നെ കുടി വെള്ളത്തിൻ്റെ കാര്യമായാല് വളരെ നിർമ്മാർജ്ജനമായ ഒര് കാലത്ത് വെള്ളം കുടിക്കാൻ പറ്റ കൊയ് കയ്യാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരുന്നത് അത് നിർമാർജ്ജനം ചെയ്യുന്നയിന് വേണ്ടി ഗെവൺമെൻട് തലത്തിൽ പല വിവിധ പ്രോഗ്രാമ്മുകൾ നടത്തുന്നതിന് വേണ്ടിയും പല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊഴുള്ള എല്ലാ പ്രവർത്തനത്തിനും അതിൻ്റെ സജീവമായി ജനങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ട് തന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഗെവൺമൻട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കൊരുപാട് ഉള ഗുണങ്ങൾ ജലസേചന സൗകര്യമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട് അത് കൃഷി അഗ്രിക്കൾച്ചർ പർപ്പസിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനും കുടി കുടി വെള്ളം എത്തിയ്ക്കുന്നതിനു വേണ്ടിയും ഗെവൺമൻട് നിർഭമായ പങ്ക്കൾ വഹിയ്ക്കുന്ന ഒര് കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചു പോന്നത് ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ തന്നെയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും ചെയ്യിപ്പിക്കുന്നതിനും നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണ് മറ്റു ചില ജനകീയ ആസൂത്രമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജനകീയ അസ്സൂത്രമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ആന്കൂല്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങളുടെ കൈയ്യിലേക്കെത്തിയ്ക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മുടെ ഗെവൺമൻട് ഭാഗത്ത് നിന്ന് കഴിയുന്നുണ്ട് എല്ലാ മേഘലകളും വളരെ ഭദ്രമായി കയർ കശുവണ്ടി ഫാക്ട്രി തൊഴിലാളികളുടെ മേഖല ഓട്ടോ തൊഴിലാളികള് മറ്റ് ജന പ്രതിനിധികള് അതിനു വേണ്ടി നല്ല കട് കഠിന ശ്രമം നടത്തുന്നുണ്ട് പഞ്ചായത് ത്രിതല പഞ്ചായത്ത് തലത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ചെയ്യിപ്പിക്കാനും അവർക്ക് നടക്കാൻ കഴിയുന്നുണ്ട് ഈ കാലഘട്ടത്ത് ജനകീയാസൂത്രണത്തിന്റെ ഫലമായി തന്നെ എല്ലാ രീതീലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പഞ്ചായത്ത് അധികൃത ത്രിതല പഞ്ചായത്ത് തലത്തിൽ ജനങ്ങള് സമീപനമായ നട നടപടികള് സ്വീകരിച്ച് വരികയാണ് അതുപോലെ തന്നെ കൃഷി പാടശേഖര മായി ബന്ധപ്പെട്ടുകൊണ്ടു തന്നെ തരിശ്ശ് ഭൂമികൾ കൃഷി ചെയ്യ്ന്നതിനും അതിന് സബ്സീഡി കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കു വേണ്ടി ഇപ്പോൾ വളരെ കാലഘട്ടമായ് നടന്നോണ്ടിരിക്കുന്നുണ്ട് അതായത് ഇത്രയോ ഏക്കർ തരിശ്ശ് ഭൂമി കൃഷി ചെയ്ത് നമ്മൾക്ക് രണ്ടായിരത്തഞ്ഞൂറിലേക്കർ ലതിലും കൂടുതൽ കൃഷി ചെയ്യാൻ ഉള്ള ഒര് മാനദണ്ടം ഒര് പഞ്ചായത്ത് തലത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കയാണ് കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ തരിശ്ശ് ഭൂമി കൃഷി ചെയ്യുന്നതു കൊണ്ട് തന്നെ അവർക്കതിൻ്റെ സബ്സീഡി കൊടുത്തു കൊണ്ടും മറ്റ് കാര്യങ്ങൾ കൃഷി ബോണസ്സ് കാര്യങ്ങൾ കൊടുത്തോണ്ടും ഈ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്നതില് വലിയ നമുക്ക് അഭിമാനകമാണ് അതുപോലെ തന്നെ ചെയ്യാൻ അ താൽപ്പര്യമുള്ള കർഷകർക്ക് പശുവളർത്തായാലും കന്നുകാലി പശു വളർത്തൽന് വളരെ രീതീലുള്ള സബ്സീഡികൾ കൊടുക്കാനും മറ്റു രീതികള് ഇപ്പോൾ നല്ല ക്ഷീര സംഘ സഹകരണ സംഘങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സബ്സീഡി കൊടുക്കുവാനും ബാക്കി പശു വളർത്തലിന്റെ കാലിത്തീറ്റയായാലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സഹായിക്കുന്ന രീതീയിലേക്ക് ഗെവൺമെൻട് വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പിന്നെ ഗൃഹ നിർമ്മാണ മേഘലയില് വളരെ കുതിച്ചുയരുന്ന ഒര് രീതി ഏതു പദ്ധതിയായിക്കഴിഞ്ഞാലും ഗൃഹ നിർമ്മാണത്തില് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി എത്രായിരം വീടുകൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇത് ഗവണ്മെൻടിന് പ്രോജക്റ്റ് ആയി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇത്ര കുറെ കാലമായിക്കൊണ്ട് തന്നെ നമൾക്കെല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട എല്ലാ കുടുമ്പക്കാർക്കും ഈ ഒര് കാലയള കാലയളവിൽ ഒരുപാട് വീട് ഗെവൺമെൻട് കൊടുക്കാൻ അത് തന്നെ പഞ്ചായത്ത് തലത്തിലും ആ വീട് ൻ്റെ ഷേമം നടക്കുന്നുണ്ട് ലെഫ്റ്റ് മിഷണ കെട്ട് കാര്യങ്ങൾക്കും നടത്തിക്കൊണ്ട് പോകുവാൻ ഈ ഒരു കാലയളവില് സാധിച്ചിട്ടുണ്ട് അതുപോലെ കുടിവെള്ളം ജനകീയാസുത്രണ പരിപാടി ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റു രീതീയിലും തൊഴിലുറപ്പ് പദ്ധതിപ്പ്രകാരം ഒരുപാട് കൃഷികൾ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഗെവൺമെൻടിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം അതേപോലെ തന്നെ ഗ്രഹസം ഗൃഹത്തിൻ്റെ ഗൃഹ നിർമ്മാണം എന്ന രീതിയില് വളരെ തുച്ഛമായ രീതീയിൽ നമുക്ക് നമ്മള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഗെവൺമെൻട് മുന്നോട്ട് പോവാൻ നടക്കുന്നുണ്ട് അതുപോലെ റോഡ് വികസനവായി ബന്ധപ്പെട്ടാണ് നമ്മുക്ക് ഏറ്റവും കൂടുതല് പറയാനുള്ള ഇന്ന് നമുക്ക് ദൈന്യം ദിനം വണ്ടികൾ കൂടുന്നൊര് കാലഘട്ടത്ത് ഇത്രയോ വണ്ടികൾ റോഡിലിറങ്ങി സഞ്ചരിയ്ക്കുണ്ടൊരവസ്ഥ വരുന്നുണ്ട് വണ്ടി നമുക്ക് റോഡ് വികസനായി ബന്ധപ്പെട്ട് പഴയകാലത്തില് റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇന്നത്തെ കാലത്ത് റോഡ് വികസനത്തിന് വേണ്ടിട്ട് ഗെവൺമെൻട് അതി ഭീകരമായ തുക കണ്ടെത്തുകയും ഫണ്ട് ശേഖരിച്ചുകൊണ്ട് റോഡ് വികസനത്തിൻ്റെ കാര്യം അതി മുന്നേറ്റമായി നടത്താൻ വേണ്ടി ഈ ഒര് കാലയളവിൽ നടന്നിട്ടുണ്ട് കേറെയിൽ ആയാലും മറ്റ് ഇതും റോഡ് വികസനം റോഡ് വികസനം ഇത് ആറ് പാത അക്കെ വിട് ദേശീയ ഹൈവേ മറ്റു കാര്യങ്ങൾ നമ്മുടെ കേരളത്തില് തന്നെ ഒരുപാട് റോഡ് വികസനം ഈ ഒര് കാലയളവില് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അത് ഗെവൺമൻട് തലത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് ചെയ്യാനുളള ഒര് നല്ലൊരു വികസന പരിപാടി തന്നെ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളായാലും ഇത് എത്രയോ കാലമായി നടന്നുപോകാനും മറ്റു രീതികൾ ബന്ധപ്പെടാൻ പറ്റാത്ത സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയൽ അയൽ രീതിയിൽ പാലങ്ങൾ ഒരുപാട് പാലങ്ങള് ഒരുപാട് പാലങ്ങൾടെ സേവനം വളരെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ഇതായ വളരെ ബുദ്ധിമുട്ടനുഭവിയ്ക്കുന്ന കർഷകർക്കത് കർഷകരും മറ്റ് കാര്യങ്ങൾക്കും പിന്നെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നടന്നോണ്ടിരിക്കുന്ന പ്രശ്നം യാത്ര ഇല്ലാത്തത് കൊണ്ട് വെള്ളത്തില് പോലും മറ്റ് വേഗം വേഗമായി പിരിഞ്ഞ് പോകുന്ന രീതീയിലേക്ക് യാത്രകൾ ചെയ്യുന്ന രീതീയിലേക്കും റോഡ് ഗതാഗതവും അതുപോലെ പാലത്തിൻ്റെ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗ്രാമ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതല് റോഡ്കളും കാര്യങ്ങളും നല്ല വികസനമായി ചെറിയ പാതകളെ വലിയ പാതകളാക്കിക്കൊണ്ട് നല്ലൊരു വികസന പദ്ധതികൾക്ക് നേട്ടം കൊടുക്കാൻ വേണ്ടി സാധിച്ചൊരു കാലഘട്ടം ഇപ്പോൾ കടന്നു പൊയ്ക്കോണ്ടിരിയ്ക്കയാണ് അതുകൊണ്ട് ഗെവൺ ഗെവൺമൻട് തലത്തിലും മറ്റു തലത്തിലും വരുന്ന പരിപാടികൾ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾ ജനങ്ങളാലും കഴിയുന്ന രീതീയിലേക്ക് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെ ജനകീയാസൂത്രണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ വമ്പിച്ച രീതിയിലും നല്ല ഗണ്യമായ രീതീലേക്കും നമുക്ക് കരുത്തുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതു കൊണ്ട് ജനപ്രധിനികളും മറ്റു കാര്യങ്ങളും നിലവിൽ ഇടപെട്ട് കൊണ്ട് പഴയകാലത്തിൻ്റെ അപ്പുറമായി എല്ലാവർക്കും ഓരോ സ്രോതസ്സെടപെട്ടുകൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒര് കാലത്താണ് നമ്മളിപ്പ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വികസനത്തിന് പോഷണ ജലം ജലം ജലത്തിൻ്റെ പ്രശ്നവായാലും കുടിവെള്ള പത്ര പ്രശ്നവായാലും ഗൃഹ നിർമ്മാണ പ്രവർത്തനമായും ബാക്കി ഏത് രീതീയിലെടുത്ത് കഴിഞ്ഞാലും വിക വികസന പ്രവർത്തനത്തിൻ്റെ ഒരു കുതിച്ച നിരയിലേക്ക് നമുക്ക് ഇന്ന് നടന്നു പോവാൻ വേണ്ടി കഴിഞ്ഞുണ്ട് ഉണ്ട് അതുകൊണ്ട് എല്ലാ മേഘലയിലും ഇത് ഓട്ടത്തൊഴികള് തൊഴിലാളികളായാലും തൊഴിലാളികൾ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനും മറ്റും തൊഴിൽ സംരംഭങ്ങൾ ഏർപ്പെട്ടുകൊണ്ടും അത് ഏതു തൊഴിലാളി തയ്യൽ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ഏത് മേഘലയില് കയർ തൊഴിലാളി അടക്കം അതേ പാരമ്പര്യമായ എല്ലാ തൊഴിലുകളും നിലനിർത്തിക്കൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി ഈ ഒരു ഗെവൺമൻട് നേട്ടങ്ങള് ഈ കാലഘട്ടം നടന്നു പോകുന്നുണ്ട് എല്ലാ ഗെവൺമെൻടും അതുപോലെ ആരോഗ്യ മേഘലയില് ആരോം ആരോഗ്യ മേഘലകൾ കൂതിച്ചു കുതിച്ചു പോക്കാണ് ഈ ഗവൺമെൻടിൻ്റെ സേവനം എന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ തേ ആരോഗ്യ മേഘലയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എല്ലാ വിധ ടെസ്റ്റ് കാര്യങ്ങളും മരുന്നുകളും കൃത്യമായ സമയത്ത് ശേകരിപ്പിക്കാനും ചെയ്യാനും കാര്യങ്ങൾ നടന്ന് നടത്തി ചെയ്യാനും ഈ ഒര് സമയത്ത് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് ഒര് നല്ല യാഥാർഥ്യമായ കാര്യങ്ങളാണ് ജന ത്രിവർത്തമായ ജന ക്ഷേമപരമായ പ്രവർത്തികൾക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ മുൻ നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രമുണ്ട് അതുപോലെ നമുക്ക് എനീം ഒര് പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്താനുണ്ട് ജനകീയമായ നേട്ടങ്ങൾ എന്ന് വരത്തണമെങ്കിൽ ഈ അതായത് വൈദ്യുതി വൈദ്യുതി മേഘലകളിലും മറ്റുകാര്യങ്ങളിലും നമൾക്കൊരുപാട് മുന്നേറ്റവുണ്ട് ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് ആ കാര്യങ്ങൾ വളരെ വ്യകത്മായി നമ്മൾക്കിപ്പം നടന്നോണ്ടിരി വൈദ്യുതി മേഖലകൾ നല്ല കുതിച്ചുയർപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്